ഒരു പുസ്തകം ഒന്നിലധികം തവണ വായിക്കുക എന്നു പറഞ്ഞാല് ആ പുസ്തകം നമ്മള് അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് പുസ്തകം മാത്രമല്ല അത് എഴുതിയ എഴുത്തുകാരിയോ എഴുത്തുകാരനെയോ നമ്മള് അത്രയധികം മനസ്സില് കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് അതിന് അര്ത്ഥം അങ്ങനെ ഞാന് വീണ്ടും വീണ്ടും ആവര്ത്തിച്ചാവര്ത്തിച്ച് വായിക്കപ്പെടാന് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം പുസ്തകങ്ങളുണ്ട് അതിലൊന്നാണ് ഹാരി പോട്ടര് എന്നു പറയുന്നത് ഹാരി പോട്ടര് എന്ന സീരീസ് ജെ കെ റോളിങ്ങിന്റെ ഹാരി പോട്ടർ എന്ന സീരീസ് ഞാന് ഒരു ആറാം ക്ലാസ്സിലോ എഴാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് വായിക്കപ്പെടുന്നത് ഒരു കുട്ടിയെന്ന നിലയില് അത് എന്നെ സംബന്ധിച്ചോളം ഒരു ഫാന്റ്റസി വേള്ഡ് തന്നെയായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങള് ചിന്തിക്കുന്നത് ഇത്രയും വലുതായിട്ടും ഈ കുട്ടിയെന്തിനാ വീണ്ടും വീണ്ടും ആ പുസ്തകങ്ങള് വായിക്കുന്നത് എന്നാണ് എങ്കില് അതിനുള്ള ഉത്തരം ഇതാണ് ജെ കെ റോളിങ്ങെന്ന എഴുത്തുകാരി ഹാരി പോട്ടര് എന്ന പുസ്തകത്തിലൂടെ ഒരോ വായനക്കാരെയും ഒരു വേറെ ലോകത്തേക്ക് കൊണ്ടു പോകുകയാണ് നമുക്ക് ഈ ലോകത്ത് ഇല്ലാ എന്ന് ഉറപ്പുള്ള ഓരോ ജീവികളും നമ്മുടെ കണ്മുന്നില് നമ്മള് കാണപ്പെടു നമ്മള് കാണുന്നത് പോലെയാണ് ആ എഴുത്തുകാരി അതിലൂടെ പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഇത് വീണ്ടും വീണ്ടും വായിക്കാനുള്ള കാരണവും ഇതു തന്നെയാണ് നമ്മള് ഈ ലോകത്ത് അനുഭവിക്കുന്ന കഷ്ടപ്പാടും ദുഖവും എല്ലാം ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മള് വേറൊരു ലോകത്തിലേക്ക് പോകുന്നു ആ ലോകത്ത് നമ്മള്ക്ക് ദുശ് ദുഃഖമില്ല സങ്കടമില്ല സന്തോഷവും അധികമില്ല നമ്മള് ഹാരി പോട്ടറിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മളവിടെ അനുഭവിക്കുന്ന ടെന്ഷനും ദുഃഖവും എല്ലാം ഹാരിക്ക് അവിടെയുണ്ടാകുന്ന ദുഃഖവും ടെന്ഷനും മാത്രമാണ് നമ്മളെ സംബന്ധിച്ചോളം നമ്മള് വേറൊരു ലോകത്ത് വേറെ ഒരു വ്യക്തിയാണ് എന്നു മാത്രം ഈ പുസ്തകം വീണ്ടും വീണ്ടും ആവര്ത്തിച്ചു വായിക്കപ്പെടുവാനുള്ള കാരണവും ഇതു തന്നെയാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സിനിമകള് പണ്ടേക്ക് പണ്ടേ ഹി ഇവരൊക്കെ ഇറക്കിയതാണ് ഞാന് ആ സിനിമകളും കണ്ടിട്ടുണ്ട് എന്നാല് ഈ പുസ്തകവും സിനിമയും താരതമ്യം ചെയ്യുമ്പോള് ഞാന് പറയും ഒരുപടി എനിക്ക് കൂടുതല് ഇഷ്ടം പുസ്തകം വായനയില് വായന തന്നെയാണ് കാരണം പുസ്തകത്തിലുള്ള പലതും സിനിമയില് ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാരണം പിന്നെ ഈ സിനിമകളായാലും ഞാന് ഒന്നിലധികം തവണ വായി കണ്ടിട്ടുണ്ട് എന്നുള്ളത് വേറെ കാര്യം പക്ഷെ വീണ്ടും വീണ്ടും ആവര്ത്തിച്ചു വായിക്കപ്പെടുവാന് ഞാന് ഇഷ്ടപ്പെടുന്നത് പുസ്തകങ്ങളായിരിക്കും